ഞങ്ങളുടെ പ്രദേശത്തെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഏക ഒരു സ്റ്റേഡിയം എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് കൃഷ്ണഗിരി സ്റ്റേഡിയമാണ് അവിടെ അന്താരാഷ്ട്ര മത്സരങ്ങളും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് അതുപോലെ അത് ഇപ്പോൾ നടന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ത്യയും ന്യൂസിലാൻഡും ടെസ്റ്റ് നടന്നിട്ടുള്ളത് അത് ഒരു രണ്ട് വർഷമായി യ്ക്ക് മുന്നേയാണ് നടന്നത് അപ്പം ഞങ്ങളുടെ ഇവിടെ നടത്തുക എന്നുള്ള ഒരു സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ കൃഷ്ണഗിരി സ്റ്റേഡിയമാണ് പിന്നെ വേറെ സ്റ്റേഡിയങ്ങളോ കാര്യങ്ങളോ ഒന്നും വയനാട്ടിൽ ഇല്ല പിന്നെ പുറത്ത് പോകാമെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് തിരുവനന്തപുരത്ത് ഒരു സ്റ്റേഡിയമുണ്ട് ആ ജ പിന്നെ അല്ലാതെയുള്ള ഫുട്ബോൾ സ്റ്റേഡിയം എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് കൊച്ചിയിലാണ് അവടേ എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് മെയ്നായിട്ട് ഫുട്ബോള് കാര്യങ്ങളെക്കെയാണ് നടക്കുന്നത് അവിടെ ഐ എസ് എല്ല് അങ്ങനത്തെ കളികളാണ് കൂടുതലായിട്ടും നടക്കാറ് ഞാന് ഒരുവട്ടം ഞാന് ഐ എസ് എല്ല് കാണാൻ വേണ്ടി പോയിട്ടുണ്ട് നല്ലൊരു കായികപരമായിട്ടുള്ള മുന്നേറ്റാണ് കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് നല്ലൊരു എന്താ പറയുക ഗ്രൗണ്ട് തന്നെയാണ് ഐ എസ് എല്ല് ന് വേണ്ടിയിട്ട് ഒരുക്കി കൊടുത്തേക്കുന്നത്